പ്രപഞ്ചത്തിൽ ഏറ്റവും നിഗൂഢതയായിട്ട് തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ ബിഗ് ബാങ് തിയറി തന്നെയാണ് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ആൾക്കാരുകൾ വലിയ വലിയ ആൾക്കാരുകൾ അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരേ വലിയ രീതിയിൽ ഇപ്പോഴും അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മുടെ ഈ ഭൂമി ഉത്ഭവിച്ചത് ഓരോ സ്ഥലങ്ങൾ എങ്ങനെയാണ് വേർപെട്ടുപോയത് അതൊക്കെ ഇപ്പോഴും അതിനെ കുറിച്ച് നല്ലരീതിയിൽ ആൾക്കാരുകൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ അറിയാൻ വളരെ ആകാംക്ഷകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും വലിയൊരു സംഭവം എങ്ങനെ നടന്നു അതൊക്കെ അറിഞ്ഞുവരുമ്പോൾ തന്നെ നമുക്ക് നല്ല പ്രായമാകും എന്നെനിക്ക് തോന്നുന്നു ഇപ്പോഴും വർഷങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുന്നെ തുടങ്ങിയ പഠനം ഇപ്പോഴും ഒരു നിലയിലും എത്തിയിട്ടില്ല അത് അവരുടെ കഴിവുകേടൊന്നുമല്ല മറ്റതിൽപരം അവർക്ക് അത് ഇതുവരെയും അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നുള്ളതാണ് അത്രക്കും ആഴത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയെടുത്ത് അതിനെകുറിച്ച് പഠിച്ച് അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതവർ പ്രസെന്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കൊക്കെ വളരെ പ്രായമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ അറിയാനാണ് എനിക്കേറ്റവും ആകാംക്ഷയായിട്ട് തോന്നുന്നത് അതൊക്കെ എങ്ങനെ നടന്നു നമ്മുടെ ഭൂലോകം എങ്ങനെ ഇങ്ങനെ വേർപെട്ടു പലപല രാജ്യങ്ങളായും പലപല കോണ്ടിനെന്റ്സായും നമ്മുടെ ഇടയിൽ എങ്ങനെ ഈ കടൽ മറ്റും എല്ലാം വന്നു എന്നറിയാൻ എനിക്ക് വളരെ ആകാംക്ഷയായിട്ട് തോന്നും അതുമാത്രമല്ലാണ്ട് നമ്മുടെ നമ്മുടെ എങ്ങനെയാണ് നമ്മളെ സൂര്യൻന്ന് നമ്മുടെ ഇത്ര ചൂട് വരുന്ന സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള അറ്റ്മോസ്ഫിയർ എന്ന ഘടകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ എനിക്ക് വളരെ ആകാംക്ഷയായിട്ട് തോന്നാറുണ്ട്